ഹലോ ഹലോ ആരായിരുന്നു ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ അതേല്ലോ അതേല്ലോ കാര്യം പറഞ്ഞോളൂ ആ ഓക്കെ ഏത് തരത്തിൽ ഉള്ള ബൈക്കാണ് വേണ്ടത് ആ ഓക്കെ ഓക്കെ ഓക്കെ ഏതാണ് വേണ്ടിയതെന്ന് പറഞ്ഞാൽ മതി നമ്മളത് സെറ്റ് ചെയ്ത് തരാം എല്ലാം ഉണ്ട് ആ എം ടി ഉണ്ടല്ലോ ആ ഓക്കെ എം ടി ഉണ്ട് ഹിമാലയ ഉണ്ട് ആർ സി ഉണ്ട് എസ് വി എല്ലാം ഉണ്ട് നിങ്ങൾ പിന്നെ തന്നത് ആവശ്യപ്പെടുന്നത് ഏതായാലും നമ്മൾ സെറ്റാക്കി തരും ആ റേറ്റിങ്ങെന്ന് പറയുമ്പഴത്തേക്ക് ഇപ്പം എന്നാ പലതിനും പല ഇതായിരിക്കും ഒരു ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ സൗണ്ട് കേട്ടിട്ട് സൗണ്ട് കേട്ടിട്ട് മൈനറാണെന്ന് തോന്നുന്നു പിന്നെ പതിനേട്ട് വയസ്സിന് താഴെ ആണെന്ന് തോന്നുന്നല്ലൊ സൗണ്ട് കേട്ടിട്ട് ആ ഓക്കെ ഓക്കെ ലൈസൻസായോ ആയതാണോ ഓക്കെ ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഇപ്പം ഇപ്പം ഞങ്ങളുടെ കണ്ടീഷൻ എന്നാ എന്നതാണ് കേട്ടില്ലല്ലോ ഒരു അല്ല ഏതാണ് ചോദിച്ചത് ഏതാണ് വണ്ടി ഏതാണ് ചോദിച്ചത് എം ഡിയോ എഫ് സി എക്സ് യൂ വി ഒക്കെ എന്ന് പറയുമ്പഴത്തേക്ക് മൈലേജ് എല്ലാംകൂടി കറക്റ്റ് വരുമ്പത്തേക്ക് പെർ ഡേ ഇരുന്നൂറ്റമ്പത് ആയിരിക്കും വരുന്നത് ആ ആ അത് എന്നാ ഹൈയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആർ സി ഒക്കെ വരുമ്പത്തേക്ക് നാന്നൂറ്റമ്പത് അഞ്ഞൂറൊക്കെയാണ് റേറ്റ് വരും ആ ഓക്കെ ബുള്ളറ്റിന് ഒരു മൂന്നൂറ്റമ്പത് റേറ്റ് ആ മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ആ മൂന്നുറ്റമ്പത് വരും എന്നു പറഞ്ഞാൽ പിന്നെ ബുള്ളറ്റല്ലേ നമുക്ക് സീറ്റിങ് കപ്പാസിറ്റി നല്ലത് പോലെ ഉണ്ട് പക്ഷെ തങ്കൾ ഇല്ലില്ലില്ല തങ്കൾ ഏതാ കറക്റ്റേതാണ് വണ്ടി എടുക്കുന്നത് എന്ന് പറയുമോ ഈ പല വണ്ടികൾ ചോദിക്കുന്നതിനേക്കാളും താങ്കൾക്ക് ഫിക്സ് ആയിട്ട് ഒരു വണ്ടി കാണുമല്ലോ അപ്പം അത് ചോദിക്ക് അതായിരിക്കും പിന്നേയും നല്ലത് പക്ഷേ ബുള്ളറ്റെന്ന് പറയുമ്പഴത്തേക്ക് കണ്ടീഷൻ വണ്ടി ആയിരിക്കും പിന്നെ എന്തുവാണ് സീറ്റിങ് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും നമുക്ക് വണ്ടിയിൽ ഇരിക്കുമ്പം അതുകൊണ്ട് നമുക്ക് അതിനെക്കാട്ടിൽ വലിയ ഇത് വരത്തില്ല വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് ഈ മുന്നൂറ്റമ്പത് റേറ്റ് വരുന്നത് എക്സ് പ്ലസിന് എന്ന് പറയുമ്പത്തേക്ക് എത്രയാണ് എക്സ് പ്ലസ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറിനും മുന്നൂറിനും ഇടയ്ക്ക് സെറ്റ് ചെയ്യാം ആ അത്യാവശ്യം മൈലേജ് പത്ത് മുപ്പത് മൈലേജ് വരും ആ മൈലേജ് ഉണ്ട്

ആ ഇത് നമ്മൾ ഇപ്പം റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചിട്ടേക്കുന്ന വണ്ടിയാണല്ലോ അപ്പം നമ്മൾ സെക്കന്റ് ഹാൻഡ് ആണോ ഫസ്റ്റ് ഹാൻഡ് ആ ഫസ്റ്റ് ഹാൻഡ് സെക്കൻറ്റും ഫസ്റ്റും നമ്മൾ നോക്കുന്നില്ല നമുക്ക് പ്രൈസിനായിരിക്കും കിട്ടുന്ന വിലക്ക് നമ്മൾ മേടിച്ചിടും ആ ആ എല്ലാ എല്ലാം ചെയ്യണം എല്ലാം ചെയ്യണം ആ നമ്മൾ ഫുൾ വെരിഫൈ ചെയ്ത് നല്ല സെറ്റാക്കിയേ വണ്ടി തരത്തുള്ളു വണ്ടിക്ക് എന്തേലും സ്ക്രാച്ചോ പോറലോ എന്തേലും ബെൻഡായാലോ അതെല്ലാം ഫുള്ള് ചെയ്യേണ്ടത് നിങ്ങളായിരിക്കും ആ ഓക്കെ ഓക്കെ എന്നത്തേക്കാണ് വരുന്നത് നിങ്ങൾ എന്നത്തേക്കാണ് പറഞ്ഞോ പറഞ്ഞോ നാളെ വന്നോ നാളെ വന്നോ ഓക്കെ ഓക്കെ പറയാം അപ്പം നമ്മൾ പതിനഞ്ച് ദിവസത്തെ റെൻറ്റ് ഒന്നിച്ചടക്കണം റെൻറ്റ് ഒന്നിച്ചടയ്ക്കണം ആ ഓക്കെ ആ ഒരു അത് ഇപ്പം ഇപ്പം എക്സ് പ്ലസെന്ന് പറയുമ്പത്തേക്ക് ഇരു ആ ഇരുന്നൂറ്റ് ആ ആ എക്സ് പ്ലസായതുകൊണ്ട് എത്രയാണ് മുന്നൂറാണ് അല്ല എക്സ് പ്ലസ് മുന്നൂറാണെ എക്സ് പ്ലസ് മൂന്നൂറെ ഉള്ളു കേട്ടോ മുന്നൂറ് മുന്നൂറ് മുന്നൂറ് ആ ആ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നിച്ചടയ്ക്കണം

ആ ഓക്കെ ഹെൽമെറ്റ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല കേട്ടോ ഹെൽമെറ്റ് അങ്ങനൊന്നും ഇല്ല ആ ഓക്കെ പിന്നെ ഐ ഡി കാർഡ് കൊണ്ടുവരണം ഇല്ലില്ലില്ല ഇല്ല ലൈസെൻസും ആധാറിൻ്റെ ഒരു ഫോട്ടോയും ഫോട്ടോ അല്ല മറ്റേ ഇത് എന്നാ പ്രിന്റാണ് ഓക്കെ ഓക്കെ ഓക്കെ ശരി എന്നാൽ